എന്നെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച ഒരു പുസ്തകം കടമറ്റത്ത് കത്തനാർ എന്നുള്ള ഒരു പുസ്തകമായിരുന്നു അതിൻ്റെ കഥകളും അതിലെ സംഭവങ്ങളുമൊക്കെ വളരെ രസകരമായിട്ട് തോന്നിയിട്ടുള്ളതാണ് ഒരു നല്ല ഒരു കഥ ആയിട്ടാണ് എനിക്ക് അത് തോന്നിയത് വളരെ രസകരവുമാണ് വായിക്കാനായിട്ട് യാതൊരു അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുമില്ല അത് വായിക്കും തോറും നമുക്ക് അടുത്ത സംഭവങ്ങൾ ഇങ്ങനെ സംഭവങ്ങൾ കോർത്തിണക്കിയിട്ടുള്ള ഒരു കഥ ആയത് കൊണ്ട് ഓരോ സംഭവങ്ങളും ഓരോ ഓരോ അനുഭവങ്ങളാണ് നമുക്ക് തരുന്നത് അതിനകത്ത് ഏറ്റവും സന്തോഷകമായ ആയിരുന്നത് നമ്മുടെ അവിടെ അച്ഛനെ ഒരു വീട്ടിൽ വിളിക്കുമ്പോൾ അവിടുത്തെ ഭർത്താവിനെ തറയിൽ കിടത്തിയിട്ട് ഭാര്യ കട്ടിലിൽ കിടക്കുന്ന ഒരു അവസ്ഥ ആ ഒരു അവസ്ഥ ആയിരുന്നു അവിടെ അച്ഛൻ ചെല്ലുമ്പോൾ അച്ഛൻ അത് കാണുകയും രാത്രിയിൽ അച്ഛൻ ഈ ഭർത്താവ് ഭാര്യ കിടക്കുന്ന കട്ടിൽ ഉയർന്നു പൊങ്ങുകയും അങ്ങനെ അവരെ പേടിപ്പിക്കുന്ന ഒരു അച്ഛൻ്റെ മാന്ത്രിക വിദ്യ അവിടെ പിന്നെ ഒത്തിരിയേറെ സംഭവങ്ങൾ ഇത് പോലെയുള്ള ഒത്തിരിയേറെ സംഭവങ്ങൾ വള്ളം ഒരു മരത്തിൻ്റെ മുകളിൽ കയറ്റി വയ്ക്കുന്നത് അച്ഛൻ്റെ വള്ളം അത് കഴിഞ്ഞിട്ട് ആൾ ചാത്തമ്മാരുമായി വേറെ കൊണ്ട് അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ അതിനകത്ത് വളരെ നന്നായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് ഇതെല്ലാം ഒരു സാധാരണ വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷവും പൊട്ടിച്ചിരിപ്പിക്കുന്നതുമായ സംഭവങ്ങളാണ് അതിനകത്ത് ഒത്തിരിയേറെ നിറച്ചിട്ടുള്ളത് ഇത് നമുക്ക് നല്ല ഒരു സുന്ദര നല്ല ഒരു അനുഭവം പ്രത്യേകിച്ച് ഒരു നോർമൽ വായനക്കാരന് ഒരു വായനയുടെ അനുഭവം അതോടൊപ്പം തന്നെ നമ്മുടെ സമയം പോകാനുള്ള ഒരു നല്ലൊ ഒരു ഉപാധിയും അതുപോലെ നമുക്ക് മനസ്സിന് ഒരു സന്തോഷം നൽകുന്ന ഒരു പുസ്തകമാണ് യാഥാർത്ഥത്തിൽ ഈ കടമറ്റത്ത് കടമറ്റത്ത് കത്തനാർ എന്നുള്ള ആ പുസ്തകം ഒരു ഒരു നമുക്ക് ഒരു ഇങ്ങനെ ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അത് മുഴുവൻ വായിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു സംഭവമാണ് അതിനകത്ത് ക്രമീകരിച്ചിരിക്കുന്നത് എന്തായാലും നല്ലൊരു അനുഭവം തരുന്ന ഒരു പുസ്തമായിരുന്നു ഈ പുസ്തകം